ഇന്ത്യ എന്നു പറഞ്ഞാല് ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യം എന്നു പറഞ്ഞാൽ മാര്ട്ടിന് ലൂതര് കിങ്ങൊക്കെ പറഞ്ഞതുപോലെ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ അങ്ങനെ പറയുന്നേ ഇന്ത്യയിലെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതു സത്യം പറഞ്ഞാല് മനുഷ്യരല്ല അതു വെറും എന്താണു പറയുക കുത്തക മുതലാളിമാരെ കയ്യിൽ നിന്നും പിരിവു വാങ്ങി രാഷ്ട്രീയം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതില് അടിമകളായി കുറേ രാഷ്ട്രീയക്കാര് സേവനം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെയൊരു അഭിപ്രായം കാരണം ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയില് ഇന്ത്യയെ നമുക്ക് എത്ര വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ അത് നമ്മുടെ മെക്കിട്ടുകയറുന്നുണ്ട് മെക്കിട്ട് കയറുന്നത് മീൻസ് നമ്മുടെ സ്വകാര്യതയിലടക്കം കൈകെടത്തുന്നുണ്ട് ഇപ്പോള് ഉദാഹരണത്തിന് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം ആയതുകൊണ്ടുതന്നെ ഒരു കാര്യം ചെയ്താൽ അതിന് എന്താണു പറയുക അതിൻ്റെ ഒരു മോറൽ വാല്യൂ പോലും നോക്കാതെ അതിനെ ചോദ്യംചെയ്യും ഇപ്പോഴൊരുത്തൻ അവൻ്റെ അമ്മയക്കൊന്നാൽ അതു ചോദിക്കാൻ വരെ ആളുണ്ട് ചോദിക്കാനാളുണ്ടെന്നല്ല അവന്റ അമ്മയെ കൊന്നുകൂടേ എന്നു വരെ ചോദിക്കാനാളുണ്ട് അത്രയും വലയ സ്വാതന്ത്ര്യമാണെന്നു വാദിക്കുന്നവരുണ്ട് അതായത് മോറൽ എത്തിക്സിനെതിരെ പോലും പറയുന്ന ആളുകളുണ്ട് പിന്നെ ഇന്നത്തൊരു സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവെന്നു പറഞ്ഞാല് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശ്രീമാൻ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയാണ് കാരണം എന്താണെന്നുവച്ചാല് അദ്ദേഹം ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനല്ല ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ച് ജനങ്ങളെ ഇങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീര് വരെ അതുപോലെ തന്നെ ഈസ്റ്റില്നിന്നു വെസ്റ്റ് വരെ മുഴുവൻ ഇന്ത്യ ഒട്ടാക ഇന്ത്യയുടെ ഹൃദയ ഭാഗങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് ജനങ്ങളെ ഒപ്പം ചേർത്തുനിൽക്കുന്ന പൊതുവേ ഒരു രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണ് വലിയ ജാഡയുണ്ടാവുക അതുപോലെത്തന്നെ നാട്ടുകാരെ കണ്ടാല് അല്ലെങ്കില് ആൾക്കാരെയൊക്കെ കണ്ടാല് ഒരെട്ടടി വിട്ടു നിര്ത്തുക അവരെയൊക്കെ ഒന്നു മാറ്റിനിർത്തുന്ന സ്വഭാവം ഉണ്ടാവും പക്ഷേ രാഹുല് ഗാന്ധി ഈസ് ഡിഫറെന്റ് അ അദ്ദേം എന്താണു പറയുക ഒരു ഇൻക്ലൂസീവ്നസ്സാണ് അദ്ദേഹത്തിന് എല്ലാവരെയും ചേർത്തുപിടിക്കും മതം നോക്കില്ല ജാതി നോക്കില്ല പക്ഷെ അദ്ദേഹത്തിനെ കാണുമ്പോള് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇത്രയും വായസ്സായിട്ടും അദ്ദേഹമാണ് ഇന്ത്യന് നാഷണൽ കോൺഗ്രസ്സിൻ്റെ ഗാന്ധി കുടുംബത്തിലെ എന്താണ് ഏറ്റവും ഇളയ സന്തതി അതായത് ഗാന്ധി കുടുംബത്തിനെ ഇനി മുന്നോട്ടു കൊണ്ടുപോവാന് അദ്ദേഹത്തിനെ നേരില് കാണുമ്പോള് എനിക്ക് ആകെ ഒറ്റ കാര്യമേ ചോദിച്ച് സൊ വൈ ആര് യു ഡിലേയിങ് യുവര് മാര്യേജ് എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് എന്താണ് ഇത്രയും ഡിലേ ആക്കുന്നത് അദ്ദേഹത്തിന് നാല്പത്തിയേഴ് അമ്പത് വയസ്സായി ഏകദേശം ആയി എന്നാണ് എന്റെയൊരു അമ്പതിനോട് അടുത്തു എന്നാണ് വിശ്വാസം ഇത്രയും വർഷങ്ങളായിട്ടും അദ്ദേഹം എന്തു പറയുന്നു ഒരു വിവാഹം കഴിച്ചിട്ടില്ല ഒരു ഗാന്ധി കുടുംബത്തിൻ്റെ അറ്റു പോവാതെ ആ ഒരു തലമുറയെ നിലനിർത്താൻ അദ്ദേഹം കല്യാണം കഴിക്കല് അത്യാവശ്യമാണ് അപ്പോള് എനിക്ക് ഞാൻ മുപ്പരെ കാണുകയാണെങ്കില് ആദ്യം ചോദിക്കുന്നത് ഇതായിരിക്കും എന്താണ് സാര് കല്ല്യാണം കഴിക്കാത്തത് നമ്മള് ഇന്ത്യ ഇന്ത്യയില് പെണ്ണു ശരിയാവുന്നില്ലേ സോണിയ ഗാന്ധീനെ പോലെ വിദേശത്തുനിന്നു വേണോ അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ മാര്യേജിനെക്കുറിച്ചായിരിക്കും ഞാനൊബ്യസ്സായിട്ടും ചോദിക്കുക